ഹലോ മാം അമൃത ഡോക്ടറല്ലേ ഓക്കേ മാം ഞാൻ ആര്യയായിരുന്നു എനിക്ക് ഇരുപത്തി രണ്ട് വയസ്സ് ഭയങ്കര പനിയാണ് മാം രണ്ട് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായി തുടങ്ങിയിട്ട് ഇടവിട്ട് ഇടവിട്ടുള്ള പനിയാണ് ആ ചുമ ഉണ്ട് മേല് വേദന ഒക്കെയായിട്ട് ഭയങ്കര ഭയങ്കര പ്രശ്നമാണ് തൊണ്ടവേദനയും ഉണ്ട് ഭയങ്കര ബോഡി പെയിനാണ് ഏയ് ഇല്ല ഇല്ല ഓക്കേ

ഓക്കേ മാം ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു ഹോസ്പിറ്റലിൽ പോയി ടാബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിച്ചായിരുന്നു കഴിച്ചിട്ടും മാറ്റം ഒന്നുമില്ല ഇല്ല വീണ്ടും ഇടവിട്ട് പനിച്ചുകൊണ്ടിരിക്കുകയാണ് ആ കസിൻസിനുണ്ടായിരുന്നു രണ്ട് പേർക്ക് ആ ആ ഓക്കേ മാം വരാം ഓക്കേ താങ്ക് യു